ഞാൻ ആദ്യമായിട്ട് മേടിച്ച പ്രോഡക്ടെന്ന് പറയുമ്പോൾ സോണി എ സെവൻ ത്രീൻ്റെ മിറർ ലെസ്സ് ക്യാമെറായാണ് ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് നല്ല ഗുണമുണ്ടായിട്ടുണ്ട് ഈ പ്രോഡക്റ്റിൻറ്റേത് ഏത് ഇപ്പെല്ലാം യൂസ് ചെയ്യുന്നത് മിറർ ലെസ്സ് ക്യാമറ അല്ലെങ്കിൽ അപ്പോൾ ഭയങ്കര വെയ്റ്റ് കുറവാണ് ഈ ക്യാമറ അതായത് ഭയങ്കര വെയിറ്റ് കുറവാണ് ചെറിയ സൈസാണ് നമുക്ക് കയ്യിൽ കറക്റ്റ് പിടിക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഇതിൻ്റെ പ്രത്യേകത കുറെ ഉണ്ട് നമുക്ക് ഇത് ആദ്യം കിട്ടീട്ടാകുമ്പോൾ നല്ല രീതിയിൽ കവറിങ്ങായിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഇതിൽ വരുമ്പോൾ ഇതിൻ്റെ ഒന്നിച്ചൊരു ചാർജ്ജറുണ്ടായിരുന്ന് അതിന് ബാക്ക് അപ്പ്ണ്ട് അഡീഷനലായിട്ടൊറു ബാറ്ററി ഉണ്ടായിരുന്നു പിന്നെ ഒരു ലെൻസും കൂടി ഉണ്ടായിരുന്നു ഇതിൻ്റെ ഒന്നിച്ചിട്ട് പിന്നെ ഈ ക്യാമറ നല്ല ഉപകാരപ്പെട്ടിട്ടുണ്ട് പിന്നെ ഇതിന് കുറെ പ്രത്യേകത ഉണ്ട് അത് ഇതിൽ മെയിൻ പ്രത്യേകതാന്ന് പറയുമ്പോൾ ഈ ക്യാമറക്ക് ടച്ച് സ്ക്രീന് ഉണ്ട് അപ്പം ടച്ച് സ്ക്രീന് യൂസാക്കാനും ഫോക്കസാക്കാനും ഫോട്ടോ എടുക്കുമ്പോൾ എല്ലാം നല്ല ഉപകരമാണ് പിന്നെ നമ്മൾ എടുത്ത ഫോട്ടോ കറക്റ്റ് വ്യൂ ഫാൻറില് നോക്കണമെന്ന് നമുക്ക് ഈ ടച്ച് സ്ക്രീൻല് നോക്കിയിട്ട് അത് നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ അതുപോലന്നെ ടച്ച് സ്ക്രീനില് ടച്ച് ചെയ്തിട്ട് നമുക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നുണ്ട് ക്യാമറ പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറയുമ്പോൾ ഇതിൻ്റെ സൈലൻറ്റ് ഷൂട്ടിങ് മോഡാണ് അപ്പം നമുക്ക് അമ്പലത്തിൽ എല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സൈലൻറ്റ് ഇടേണ്ട സ്ഥലത്തെല്ലാം ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് സൈലൻറ്റ് ഷൂട്ട് മോഡ് യൂസ് ചെയ്തിട്ട് ഫോട്ടോ എടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ ഭയങ്കര ഉപകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ വേറൊരു പ്രത്യേകതാന്ന് പറയുമ്പോൾ ഇതിൽ ഒരു സെക്കൻഡിൽ നമുക്ക് ഏകദേശം പത്തോളം ഫോട്ടോസ് ഒന്നിച്ച് ക്ലിക്ക് ചെയ്യാൻ പറ്റും അത് ഇതിൻ്റെ വലിയൊരു ഉപകരമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിന് ഇത് പ്രത്യേകതാന്ന് പറയുമ്പോൾ ഇത് ഈ ക്യാമറ ഫുൾ ഫ്രെയിംമ് ക്യാമറാണ് അപ്പം ക്രോപ്പ് സെൻസറല്ല ഇതിൻ്റെ ഫുൾ ഫ്രയിമായത് കൊണ്ടെനിക്ക് നല്ല ഉപകാരം കിട്ടീട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെഗാ പിക്സല് വരുന്നത് ഏകദേശം ട്വൻറ്റി ഫോർ പോയിൻറ്റ് ടു മെഗാ പിക്സൽ വരുന്നുണ്ട് അതുകൊണ്ട് ഫോട്ടോസെല്ലാം നല്ല ക്ലാരിറ്റി ആയിട്ട് കിട്ടുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് രണ്ട് ഫയലിലിത് സേവാക്കാം പറ്റും അതായത് റോ ഇമേജസും ജെ പി ജി ഇമേജസായിട്ട് നമുക്ക് സേവാക്കാൻ പറ്റുന്നുണ്ട് അതുപ്പോലെ തന്നെ അതുകൊണ്ട് ഇപ്പം എഡിറ്റിങ്ങിനെല്ലാം യൂസ് ആക്കുന്നത് റോ ഇമേജസ്സാണ് അപ്പോൾ അത് ഭയങ്കര എനിക്ക് ഉപകരമായിട്ട് തോന്നിയിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ മെയിന് വേറൊരു പ്രത്യേകതാന്ന് പറയുമ്പോൾ നമുക്ക് വീ വീഡിയോ എടുക്കുന്നത് റെസൊല്യൂഷന് ഫോർ കെ എച്ച്ഡിആർ മോഡില് വൺ ട്വൻറ്റി നൂറ്റി ഇരുപത് ഫ്രെയിംസ് പെർ സെക്കൻറ്റിൽ നമുക്ക് എടുക്കാൻ പറ്റുന്നുണ്ട് അത് വളരെ ഉപകരമാണ് പിന്നെ അതുപോലെ തന്നെ സ്ലോ മോഷൻ മോഡിലും നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റുന്നുണ്ട് ഇതിന്റെ ഇതൊക്കെയാണ് മെയിന് പ്രത്യേകതകൾ ഈ ക്യാമറയ്ക്ക് വരുന്നുള്ളത് ഇത് വെയ്റ്റ് കുറവായതാണ് മെയിന് വേണം പിന്നെ ചെറിയ സൈസാണ് നമുക്ക് കറക്റ്റ് നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്ന ക്യാമറയാണ് പിന്നെ ഇതിൻ്റെ ഒന്നിച്ച് നമുക്കൊരു ലെൻസും കിട്ടീട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര ഉപകാരപ്പെട്ട ഒരു ക്യാമറയായിരുന്നു ഇത് നല്ലൊരു ക്യാമറയാണ് അപ്പോൾ ഞാൻ ഇത് എല്ലാവരോടും എടുക്കാൻ വേണ്ടീട്ട് ഒരു ഇത് പറയുകയാണ്